ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സി വി രാമൻ ശ്രീനിവാസ രാമാനുജൻ എപിജെ അബ്ദുൽ കലാം വിക്രം സാരാഭായി പിന്നെ കെ രാധാകൃഷ്ണൻ ആര്യഭട്ടൻ ഒന്നാമൻ ഇവരെല്ലാവരും നമ്മുടെ ശാസ്ത്ര ലോകത്തിന് മികച്ച സംഭാവന നൽകിയിട്ടുള്ള മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഏതാനും ചിലരാണ് അതുപോലെ തന്നെ ശ്രീനിവാസ രാമാനുജൻ ആര്യഭട്ട സി ആർ റാവു എന്നിവർ ഗണിതശാസ്ത്രജ്ഞത്തിന് ഗണിതശാസ്ത്രത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി കൂടിയായ എപിജെ അബ്ദുൽ കലാം ബഹിരാകാശ ശാസ്ത്രത്തിന് വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്